ഞങ്ങളുടെ പ്രദേശത്തായി ചില പൂജകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പൂജകള് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൂജയിൽ പങ്കെടുക്കുക എന്നു പറയണത് കുടുംബക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ പൂജകൾ ചെയ്യണ സമയത്ത് അവിടെ എന്താ പറയുക പ്രവേശനം ഉള്ളത് അപ്പോൾ പുറത്തുനിന്ന് വരണ ആൾക്കാർക്ക് ഒരിക്കലും അവിടെ പ്രവേശനം ലഭിക്കുകയില്ല അതുപോലെ തന്നെ ചില ആചാരങ്ങൾ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ അല്ലെങ്കിൽ ആ ഒരു ആചാരത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വിലക്ക് ഏർപ്പെട്ടിട്ടുണ്ട്